ഹലോ ഹലോ സ്വീറ്റ് മാർട്ടല്ലേ ഇത് മുരിക്കാശ്ശേരിയിൽ നിന്നായിരുന്നു അടുത്ത ദിവസത്തേക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷനുണ്ടായിരുന്നു അപ്പം കുറച്ച് സ്വീറ്റ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് വിളിച്ചതായിരുന്നു അവിടുത്തെ ഓർഡറുകളൊന്ന് പറയാവോ അവിടുത്തെ എന്തൊക്കെയാണ് എന്നൊക്കെ ഡോണറ്റ്സ് ഉണ്ടോ ഡോണറ്റ്സ് ഒരു ഒരു അൻപത് പേർക്ക് ഉള്ള ഡോണറ്റ്സ് വേണം അൻപത് പേർക്കുള്ള ജിലേബി പിന്നെ ഒരു റ്റു കെ കേക്ക് ഒരു രണ്ട് കിലോയുടെ കേക്ക് വേണം സ്ട്രാബെറി ഫ്ലേവർ അവൈലബിളാണോ ഓക്കെ അപ്പം സ്ട്രോബറി ഫ്ലേവർ തന്നെ വേണം അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ ഓക്കെ പന്ത്രണ്ടാം തീയതിയിലേക്ക് ആണ് ഡെലിവറി ഉണ്ടോ ഡെലിവറി ആ ഡെലിവറി ചെയ്ത് ഇവിടെ കൊണ്ട് തരാൻ പറ്റുവെങ്കിൽ കൊണ്ട് തരണം കേട്ടോ കാരണം അത്ര അത്യാവശ്യം ആയതുകൊണ്ടാണ് പിന്നെ പിന്നെ കേക്കിൻ്റെ റേറ്റൊന്ന് പറയാൻ പറ്റുമോ ടു കെ യുടെ രണ്ട് കിലോയുടെ കേക്കിൻ്റെ വിലയാണോ ഈ പറഞ്ഞത് ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ അപ്പം ഇത്രയും ജിലേബിക്കും ലഡ്ഡുവിനും ഡോനട്ട്സിനും കൂടെ എത്രയാകും എന്നൊന്ന് പറയാൻ പറ്റുമോ ആകും അല്ലേ അപ്പം ഇത് ലൊക്കേഷൻ എവിടെയാണ് ഓക്കെ അപ്പം ഓക്കെ എവിടെ ബസ് സ്റ്റാൻഡ് ഇവിടെ കോളേജിൻ്റെ ഭാഗത്തായിട്ടാണ് ഡെലിവെറി വേണ്ടത് അപ്പം അത് രാവിലത്തേക്ക് തന്നെ കിട്ടണം കേട്ടോ ഓക്കെ പേയ്മെൻ്റ് കറക്റ്റായിട്ടൊന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞേരെ പറഞ്ഞോളൂ ഹലോ ആ കേട്ടോ കേൾക്കുന്നുണ്ടോ അപ്പം കുറച്ച് മിഠായികൾ കൂട്ടി വേണം കേട്ടോ ഒരു ഹൻഡ്രഡ് ഓക്കെ അപ്പോൾ എല്ലാത്തിൻ്റെ പേയ്മെൻ്റ് നിങ്ങൾ കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി കേക്ക് സ്ട്രോബെറി ഫ്ലേവർ തന്നെ വേണം ഒരു ഹാഫ് കെ ജിയുടെ ഒരു കേക്ക് കൂടി വേണം അതൊരു പിസ്ത ഫ്ലേവർ

ഓക്കെ അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡീറ്റെലായിട്ട് വാട്ട്സാപ്പ് ചെയ്തേക്കാം ഈ നമ്പർ തന്നെ അല്ലേ ഓക്കെ ഞാൻ ഇത് വാട്ട്സാപ്പ് ചെയ്തേക്കാം അപ്പം എങ്ങനെ ആയിരുന്നാലും കൊണ്ടുതരാൻ പരമാവധി നോക്കണേ ഓക്കെ ആ ഓക്കെ അപ്പോൾ ശരി എന്നാൽ താങ്ക്യു